അ നീന്തൽ പഠിക്കുന്ന സമയത്ത് മുങ്ങിപ്പോവുക വളരേ സാധാരണമാണ് നമ്മൾ എപ്പോഴെങ്കിലും ഒരു പ്രക്ക്വേഷൻ എടുത്തു കൊണ്ട് നീന്തൽ പഠിക്കാൻ ഇറങ്ങുകയുള്ളു അപ്പം എന്റെ കൂടെ എപ്പോഴും എന്റെ കൂട്ടുകാർ കാണും അല്ലെങ്കിൽ എന്റെ ട്രെയിൻ ചെയ്യുന്ന ആരെങ്കിലും കാണും എന്റെ കൂടെ അപ്പോൾ എനിക്ക് അങ്ങനെ ഞാൻ ഇതുവരെ മരണം മരണാവസ്ഥയിലേക്ക് പോയിട്ടില്ല എന്തെങ്കിലും കഷ്ടപ്പാടുകളിൽ പെടുന്ന അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് ഞാൻ ഒരു ദിവസം ഇങ്ങനെ പഠിച്ച് കൊണ്ടിരിക്കുന്ന ടൈം ആയി ട്യൂബെക്കെ ഉണ്ട് കയ്യിൽ അങ്ങനെ ഇട്ടു കുറച്ച് നീന്തി കുറച്ച് മാറി കഴിഞ്ഞപ്പം എന്റെ കൈയ്യും കാലും പിന്നെ അണച്ച് വയ്യാതാകാറായി അപ്പം എനിക്ക് അവരെ വിളിക്കാനുള്ള ഒരു അവസ്ഥ പോലും ഇല്ലായിരുന്നു ഞാൻ നോക്കുമ്പോൾ അവരെല്ലാം അവിടെ ഉണ്ട് അവരെല്ലാം കളിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ കുറച്ച് ദൂരെയാണ് അത്യാവശ്യം ഒഴുക്കുണ്ട് ഞാൻ അങ്ങനെ ഒഴുകിപ്പോകാറായി ഇങ്ങനെ നിൽക്കുന്ന ടൈമിൽ ഞാൻ അവരെയൊന്ന് അവരെ ആംഗ്യം കാണിച്ച് വിളിച്ചതൊന്നും അവർ കാണുന്നില്ല അങ്ങനെ ഞാൻ പതുക്കെ മുങ്ങി പോവാറാവുന്ന പോലെ ഒക്കെ എനിക്ക് തോന്നി ഞാൻ ഇപ്പംപ്പോവും എനിക്കാണെ ദേഹം മൊത്തം തളർന്ന് അതെന്ത് പെട്ടെന്ന് എനിക്ക് പറ്റിയത് എന്നറിയത്തില്ല തലകറങ്ങുന്ന പോലെയും കണ്ണിൽ ഇരുട്ട് കേറുന്നതും പോലെ എല്ലാം തുടങ്ങി വെള്ളത്തിൽ കിടക്കുക ആണേലും മുഖത്ത് വെട്ടം സൂര്യൻ ഇങ്ങനെ ചൂട് അടിച്ചിട്ടുമെല്ലാം എന്തോപോലെ ആയി പെട്ടെന്ന് ഞാൻ അങ്ങ് ഡള്ളായി എനിക്ക് എന്തോപോലെ ആയിട്ട് ഞാൻ അവന്മാരെ കുറേ വിളിച്ചെങ്കിലും എനിക്ക് അങ്ങോട്ട് ഉച്ചത്തിൽ വിളിക്കാൻ പറ്റുന്നില്ല അഒണ്ടായിരിക്കാം അവന്മാർ കേട്ടില്ല ഞാൻ അങ്ങ് പിന്നെ കുഴഞ്ഞ് അങ്ങ് അവശനായി വയ്യാതായി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവന്മാരെ എങ്ങനോ അതിൽ ഒരുത്തനുണ്ട് അവൻ ഇങ്ങനെ അവനാണ് മെയിൻ ട്രെയിനിങ് അവൻ ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ ആൾക്കാരെ നോക്കിയപ്പോൾ ഒരാളുടെ കുറവ് പോലെ തോന്നി ഞാൻ അങ്ങ് ദൂരെ മാറി കിടക്കുന്നു പെട്ടെന്ന് തന്നെ നോക്കിയപ്പം ഞാൻ ഇങ്ങനെ കുറച്ച് നേരായിട്ട് അങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അവൻ കേൾക്കുന്നില്ലല്ലോ അങ്ങനെ അവൻ കുറച്ച് കഴിഞ്ഞ് വന്നു എന്നെ പിടിച്ച് അവൻ അവൻ അവൻമ്മാരെ വിളിച്ച് എടാ എടാ അവൻ എന്തോ പറ്റുന്നു എന്ന് പറഞ്ഞ് പെട്ടെന്ന് അങ്ങോട്ട് ചാടി അവന്മാർ നീന്തി വന്നു എന്നെ പെട്ടെന്ന് ആ ട്യൂബിൽ നിന്ന് ഊരി പിന്നെ അവൻമാരുടെ രണ്ട്പേരുടെ ദേഹത്തായിട്ട് ഞാൻ രണ്ട് പേരുടെ തോളത്തായിട്ട് പിടിച്ച് വേറെ എവിടെ എങ്കിലും തലയിലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അവരും കൂടെ മുങ്ങിപ്പോവും അത്കൊണ്ടെ് എന്നോട് പറഞ്ഞിട്ടുണ്ട് എപ്പോഴെങ്കിലും മുങ്ങിപ്പോവുന്ന അവസ്ഥയുണ്ടെങ്കിൽ തോളത്തേ പിടിക്കാവുള്ളു തോളത്ത് പിടിച്ചാൽ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റത്തുള്ളു നീന്തി വരാൻ പറ്റത്തുള്ളു എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അവന്മാരുടെ തോളത്ത് പിടിച്ചു അത് കഴിഞ്ഞിട്ട് അവന്മാർ പതുക്കെ നീന്തി എന്നെ കരയ്ക്ക് കൊണ്ടു വന്നു കരയ്ക്ക് വന്നപ്പോഴേക്ക് ഞാൻ കുറേ വെള്ളമൊക്കെ കുടിച്ച് ഇരുന്നു ഞാൻ ക്ഷീണിച്ചു അവശനായി കുറേ വെള്ളമൊക്കെ കുടിച്ച് വയറ് എന്തൊപോലെ ആയി അവന്മാർ എന്റെ വയറ്റിൽ പ്രെസ്സെ ചെയ്തു എന്റെ ബോധം പോയിരുന്നു അവമ്മര ങ്ങനെടുത്ത് അവന്മാര് പറഞ്ഞ് ഇതക്കെ അവന്മാര് പറഞ്ഞത ആ ടുബുള്ളത് കൊണ്ട് ഞാൻ ജീവനോടെ ഇരിക്കുന്നു ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ലായിരുന്നു ട്യൂബിൽ നിന്നത് എന്നിട്ട് അവന്മാർ പെട്ടെന്ന് അവിടെ വന്നു എന്റെ വയറ്റിൽ പ്രെസ്സ് ചെയ്തു കുറേ വെള്ളം വായിൽ നിന്ന് പോയി കുറേ പായലുപോലെ എന്തൊക്കെയോ കയറിയായിരുന്നു അതുകൊണ്ട് ആയിരിക്കും ചിലപ്പം ആദ്യമേ കയറിയത് കൊണ്ടായിരിക്കും എനിക്ക് ദേഹം മൊത്തം തളരുന്ന പോലെ ഒക്കെ തോന്നിയത് കുറേ പോയെന്നു പറഞ്ഞു പിന്നെ എന്നെ അത് കഴിഞ്ഞ് അവന്മാർ വണ്ടി വിളിച്ചു അപ്പോൾ അവിടെ നാട്ടിലുണ്ടായിരുന്നവരൊക്കെ പെട്ടെന്ന് സൗണ്ട് കേട്ടു ഇവന്മാർ ബഹളം വയ്ക്കുന്നത് കണ്ടു ഓടി വന്നു എന്നിട്ട് കുറേ ബഹളം വയ്ക്കുത് കണ്ട് ഓടി വന്നു ഓട്ടോയിൽ എന്നെ പെട്ടെന്ന് ഓട്ടോ വിളിച്ച് ഓട്ടോയിൽ എന്നെ ആശുപത്രിയിൽ കൊണ്ടു പോയി അവടെ കൊണ്ട് പോയി ഡ്രിപ്പ് ഇട്ടു കിടന്നപ്പോൾ ഞാൻ ഒക്കെയായി എന്നാലും അത് ഭയങ്കര ഒരു ഭീതിപ്പെടുത്തുന്ന ഒരു അനുഭവമായിരുന്നു അത് വല്ലാത്ത ഒരു അനുഭവമായിരുന്നു എന്നിട്ട് പിന്നെ നീന്താൻ പഠിച്ച് കഴിഞ്ഞപ്പം അതൊക്കെ ഒരു രസായിട്ട് തോന്നുന്നു ഇതൊക്കെ അനുഭവിച്ചാണല്ലൊ നീന്താൻ പടിക്കുന്നത് അപ്പം അന്ന് എന്റെ കൂടെ ആൾക്കാർ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ അങ്ങ് രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ എന്തുപറ്റുമെന്ന് അറിയില്ലായിരുന്നു അതുകൊണ്ട് എപ്പോഴും നീന്തുമ്പോൾ ആരെങ്കിലും കൂടെയുള്ളതാണ് ഏറ്റവും നല്ലത്